അടുക്കളയും ശുചിറൂമുമൊക്കെ എന്ത് ശുചിമുറിയും ഒക്കെ എന്തുമാത്രം വൃത്തിയായി സൂക്ഷിച്ചെന്നു പറഞ്ഞാലും പാറ്റയും എലികളും ഒക്കെ വന്ന് അതിനകത്ത് വന്നു ശല്യം നമുക്ക് ശല്യം ചെയ്യാറുണ്ട് പാറ്റയാണെങ്കിൽ അടുക്കള വൃത്തിയായിട്ട് അടിച്ചു വാരിയിട്ടുണ്ടെന്നു പറഞ്ഞാലും അതിൽ രാത്രിയിൽ നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കിടക്കുന്ന സമയത്ത് മുതൽ പാറ്റകളൊക്കെ വരാറുണ്ട് അപ്പം ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ രാത്രിയിൽ ഇടയ്ക്ക് അത്യാവശ്യമായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അടുക്കള ലൈറ്റ് ഇട്ടു കഴിയുമ്പോൾ പാറ്റകളൊക്കെ അതിലെ ഓടി ചിതറി ഓടുന്നത് കാണാം അപ്പോൾ അതിനെ എല്ലാം ഞങ്ങൾ ചൂലുകൊണ്ട് അടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോഴും എല്ലാ പാറ്റകളെയൊന്നും കിട്ടാറില്ലാത്തതുകൊണ്ട് ചില വിപണികളിൽ നിന്ന് കിട്ടുന്ന ചില മരുന്നുകളൊക്കെ വാങ്ങിച്ച് വിഷവസ്തുകൾ വാങ്ങിച്ച് ഞങ്ങൾ അതിൽ അടുക്കളയിൽ പല ഭാഗത്തായിട്ട് വെച്ച് അതെല്ലാം രൂചിച്ചു നോക്കി പാറ്റ തിന്നു കഴിയുമ്പോൾ അവിടെത്തന്നെ ചത്തു വീഴുന്നൊരു സാഹചര്യം ഉണ്ട് വിപണിയിലാണെങ്കിലും പല തരത്തിലുള്ള വിഷവസ്തുക്കൾ പാറ്റയെ കൊല്ലുന്നതിനുള്ള സാധനങ്ങളുണ്ട് ചിലത് ചോക്ക് പോലുള്ള സാധനങ്ങളുണ്ട് അത് വരച്ചു കഴിഞ്ഞാൽ ആ വര പാറ്റ അവിടെ വന്ന് അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് തിന്നുകയും അത് അവിടെത്തന്നെ ചത്തു വീഴുകയുമാണ് ചെയ്യുന്നത് പിന്നെ വേറെ ഈ ഹോള് പോലെയുള്ള ചെറിയ സുഷിരങ്ങൾ ഉള്ളയിടത്തൊക്കെ ചോക്കൊന്നും വരയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അതവിടെ ഈ ഹിറ്റ് എന്നു പറഞ്ഞതുപോലുള്ള ചില സ്പ്രേകളുണ്ട് അത് വാങ്ങിച്ച് അവിടെ അടിച്ചു കഴിഞ്ഞാൽ അത് കുറെ സമയത്തേക്കതിൻ്റെ വിഷം അതിൻ്റെ ആ ഗന്ധം നിലനിൽക്കുമ്പോൾ അത് പാറ്റയൊക്കെ ചാകണം അത് മനുഷ്യർക്ക് ഹാനികരമായ രീതിയിലത് ഉപയോഗിക്കുന്നതും അങ്ങനെയൊക്കെയാണ് പാറ്റയും ഒക്കെ നിർമാർജ്ജനം ചെയ്യുന്നത് പിന്നെ എലി എലിയെയൊക്കെ അടുക്കളയിൽ അടുക്കളകളിലാണ് കൂടുതലും ഈ എലിയുടെ ശല്യമൊക്കെ വരാറുണ്ട് അത് മച്ചിൻ്റെ മുകളിൽ ചില ഹോളൊക്കെ ഉണ്ട് അതുവഴിയൊക്കെയാണ് എലി ചാടിവരുന്നു വരുന്നത് അത് അതും പൂച്ച പോലുള്ള വളർത്തുമൃഗങ്ങൾ ഉള്ളതുകൊണ്ട് അവയ്ക്ക് ഹാനികരമാകാത്ത രീതിയിൽ ഒക്കെ വേണം അതിനെ എലിക്ക് വിഷം വെച്ച് അതൊക്കെ കൊല്ലാനായിട്ട് അതുകൊണ്ട് പൂച്ചയെയൊക്കെ അടുക്കളയിൽ കയറുന്നില്ലയെന്ന് ഉറപ്പുവരുത്തിയതിനുശേഷം വിഷമൊക്കെ വെച്ച് അതിനെ കൊല്ലാറുണ്ട് പിന്നെ ചെറിയ ചെറിയ സാധാരണ ഈ അടുക്കളയിലൊക്കെ വരുന്നത് ഈ മച്ചെലി പോലുള്ള ചില ചെറിയ എലികളാണ് അവയെ അവയ്ക്ക് ചെറിയ എലിപ്പെട്ടി വാങ്ങിച്ചിട്ട് അതിനകത്ത് തീറ്റ വസ്തുക്കൾ വെച്ച് കെണിവെച്ച് അതിനുശേഷം അത് ഞങ്ങൾ ഈ രാത്രിയിൽ എലി വന്ന് ഇതിൽ ഈ കെണിക്കകത്ത് എലിപ്പെട്ടിക്കകത്ത് വന്നു കയറി പക്ഷെയും തീറ്റ തിന്നാൻ നോക്കുമ്പോൾ അത് കളി കെണിവീണ് അത് കെണിയിൽ അകപ്പെടും അപ്പോൾ അതിനെ കൊണ്ടുപോയി നശിപ്പിച്ച് കൊന്ന് വെള്ളത്തിൽ മുക്കിയോ എലിപ്പെട്ടി മുഴുവനോടെ വെള്ളത്തിൽ മുക്കി ഒക്കെ കൊന്നുകളയും അങ്ങനെയൊക്കെയാണ് എലിയെ കൊല്ലുന്നത് എലിയെ രാത്രി ചിലപ്പോൾ വരുമ്പോൾ ഈ അടുക്കളയ്ക്കകത്ത് ഓടി പാഞ്ഞുനടക്കുന്നത് കാണാം പക്ഷെ അതിനെ ഒന്ന് ചിലപ്പോൾ തല്ലികൊല്ലാൻ കിട്ടുകയൊന്നുമില്ല എന്നാലും ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും കൂടുതലും ഈ എലിപ്പെട്ടിയിൽ വെച്ചാണലോ കൂടുതലും ഇതിനെ പിടിച്ച് കൊല്ലും നശിപ്പിക്കുന്നത്